ആ ഹലോ ഞാൻ ഇന്ന് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് യാത്ര പോകുമ്പോൾ ഒരു ഡ്രൈവർ വന്നില്ലേ ലഡാക്ക് ട്രിപ്പിൽ അതേപോലത്തെ ഒരു ഡ്രൈവറെ എനിക്ക് ഇത്തവണ വേണം ഞാൻ ഇത്തവണ സിക്കിമിലേക്ക് പോവാണ് ആ ഡ്രൈവറെ പോലത്തെ ഒരു ഡ്രൈവർ വേണം നല്ല എല്ലാ സ്ഥല ആ നാട്ടിലെ കുറിച്ച് ഏകദേശം എല്ലാ സ്ഥലങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ഒരു ധാരണ വേണം അയാൾക്ക് അയാൾ അന്ന് പോയത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോവണം കൃത്യമായിട്ടുള്ള ഭക്ഷണ സ്ഥലങ്ങളൊക്കെ നമുക്ക് കിട്ടണം വൃത്തിക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങളും നല്ല ഹോട്ടൽ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അയാൾക്കറിയണം നല്ല റേറ്റിങ്ങ് ഉള്ള ഒരു ആൾ ആയിരിക്കണം കേട്ടോ പിന്നെ നല്ല മാന്യമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു ആൾ ആയിരിക്കണം പിന്നെ എല്ലാ ഭാഷകളും ഇംഗ്ലീഷ് ഒക്കെ എന്തായാലും ആ ഡ്രൈവർക്ക് അറിഞ്ഞിരിക്കണം അന്ന് മുമ്പൊരിക്കൽ ഞാൻ പോയ ടൈമിൽ അയാ ആ ഡ്രൈവറിന് ഒട്ടും ഇംഗ്ലീഷോ അയാൾക്ക് അയാൾടെ ഭാഷ മാത്രമേ അറിയുന്നുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് അയാളോട് ഞാൻ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല റേറ്റിങ്ങ് ഉള്ള ഒരു ആൾ ആയിരിക്കണം ഓല ഊബർ പോലെ തന്നെ നല്ല പ്രശ് നല്ലൊരു എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പിൽ തന്നെ ഉള്ള ഒരു ഡ്രൈവറെ കിട്ടിയാൽ സന്തോഷം ഞാൻ പിന്നെ പറയുന്നത് കേട്ടു നിങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ ലൈക് ഒരു പുതിയൊരു ഈ സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ യാത്രകളൊക്കെ എത്തുന്ന ആ സംരംഭത്തിൽ നിന്ന് എടുത്താൽ എനിക്ക് വളരെയേറെ സന്തോഷം പിന്നെ ആ ഡ്രൈവർ നല്ല രീതിയിൽ എല്ലാ സ്ഥലങ്ങളെയും കുറിച്ച് ഒരു കൃത്യമായ ധാരണയുള്ള ഒരു ആൾ ആയിരിക്കണം ഞാൻ പറഞ്ഞിരുന്നല്ലോ പിന്നെ നല്ല രീതിയിലുള്ള നല്ല സ്വഭാവം ആയിരിക്കണം പിന്നെ അയാൾക്ക് എല്ലാ സ്ഥലങ്ങളും അറിഞ്ഞിരിക്കണം നല്ല ഡ്രൈവർ നല്ല ഡ്രൈവിംഗ് സ്കിൽ ഉള്ള ഒരു ആൾ ആയിരിക്കണം കഴിഞ്ഞ തവണത്തെ പോലെ ആവരുത് ഒരു തവണ ഞാൻ അപകടത്തിൻ്റെ വക്കത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ അല്ല നല്ല പതുക്കെ നല്ല സമാധാനത്തോടെ വണ്ടി ഓടിക്കുന്ന ഒരു ആൾ ആയിരിക്കണം പിന്നെ അയാൾക്ക് നല്ല രീതിയിൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ അറിയണം എല്ലാ ആൾക്കാരോട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാനും അറിയണം പിന്നെ നല്ല റേറ്റിങ്ങ് ഉണ്ടായിരിക്കണം ഫൈവ് സ്റ്റാർ റേറ്റിങ്ങ് ഉള്ള ഒരാളെ കിട്ടിയാൽ അത്രയും സന്തോഷം പിന്നെ കുറേ ഭാഷകൾ അറിയണം ഇംഗ്ലീഷ് ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരു ആൾ ആയിരിക്കണം നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉള്ള ഒരു ആൾ ആയാൽ അത്രയും സന്തോഷം പിന്നെ ഒരു കുറേ ഹോട്ടലുകളെ കുറിച്ചൊക്കെ അറിയണം കേട്ടോ അയാൾക്ക് ആ പ്രാദേശിക സ്ഥലത്തുള്ള നല്ല രീതിയിലുള്ള ഹോട്ടലുകളും നല്ല താമസ സ്ഥലങ്ങളും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളും നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും അതിനെക്കുറിച്ചൊക്കെ അയാൾക്ക് നല്ല രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാവണം പിന്നെ നല്ല രീതിയിലുള്ള പെരുമാറ്റം ആയിരിക്കണം ഒരു തവണ നല്ല രീതിയിൽ മോശമായൊരു പെരുമാറ്റം എനിക്ക് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്